കാരി കരിമീൻ ചെമ്മീൻ മത്തി അയല ഒന്നും ഇഷ്ടമില്ല ആറ്റുമീനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത് വരാല് കരിമീന് ചെമ്മീന് മുതുകില്ല അണ്ടികള്ളി എന്നിവയൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് പാടത്തിറങ്ങി പിടിക്കുമായിരുന്നു ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട് പള്ളത്തി വറുത്തത് പള്ളത്തി പച്ചയ്ക്ക് പിടിച്ച് വെട്ടി ഉണങ്ങി മുളക് പൊടിയൊക്കെ തേച്ച് ഉണങ്ങി വെച്ചിരുന്ന പിന്നെ മഴക്കാലം പിടിക്കുമ്പോൾ അത് വറുത്ത് കപ്പയും പള്ളത്തി വറുത്തുപൊടിച്ച് ഇതൊക്കെ കൂട്ടി അതൊക്കെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ വിനോദം മീൻപിടുത്തമായിരുന്നു ഇപ്പോൾ പിന്നെ ഒന്നിനും പോകുന്നില്ല അറുപത് വയസ്സു കഴിഞ്ഞ കാരണം വീട്ടിൽ തന്നെ ഇരിപ്പാണ് മക്കൾ കൊണ്ടുവരുന്നത് കൊണ്ട് ഭക്ഷിച്ച് ഇരിക്കും മക്കളുടെ വഴക്കും പെമ്പറന്നോത്തിയുടെ വഴക്ക് ഒക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഹോബി പിന്നെ ഞാൻ വല്ലപ്പോഴും ഇച്ചിരി സിഗരറ്റ് വലിക്കുകയും ഇച്ചിരി കള്ളു കുടിക്കുകയും ഒക്കെ ചെയ്യും അത് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാനും ഒരു മനുഷ്യനാണ് സമയത്ത് ആഹാരമൊക്കെ കഴിച്ച് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് ഇത്രയൊക്കയേ ഉള്ളു എനിക്ക് പറയാനുള്ളത് മീൻ കറി വെക്കുന്നത് വെട്ടി മുളക്പൊടിയൊക്കെ തേച്ച് കുറച്ചുനേരം ചട്ടിയിൽ വയ്ക്കുക അതുകഴിഞ്ഞ് മുളകും ഉപ്പും എല്ലാം പിടിച്ചു കഴിയുമ്പോൾ

വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയിൽ വെച്ച് വറക്കുക വറുത്ത് മൊരിഞ്ഞു കഴിയുമ്പോൾ എടുക്കുക കഴിക്കുക പിന്നെ കറിവെക്കുന്നത് പുളി വാളൻ കുടംപുളിയും മറ്റുള്ള അതിൻ്റെ ചേരുവകൾ എല്ലാം ചേർത്ത് കറിവെച്ച് ഒരു കുറച്ച് സമയം ഇരുന്ന് ആറി കഴിയുമ്പോൾ കഷണത്തിൽ എല്ലാം അതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചു കഴിയുമ്പോഴാണ് മീന് അതിൻ്റെ ശെരിയായ രുചി കിട്ടുന്നത് ആറി കഴിക്കുമ്പോഴാണ് അതിൻ്റെ നല്ല രുചിയും ഇതെല്ലാം കിട്ടുന്നത് ഇറച്ചിയേക്കാൾ നല്ലത് മീൻ ആണ് എല്ലാ കാര്യത്തിലും ആ ഇപ്പോഴും എപ്പോഴും പഴയകാലത്തെ വരാല് വരാല് കാരി അതുപോലുള്ള എല്ലാ മീനുകളും നല്ല രുചിയോടു കൂടി പിടിക്കാനും കൂട്ടുവാനും ഒക്കെ ഉള്ളൊരു ഇഷ്ടമുണ്ട് പക്ഷേ പ്രായം അനുവദിക്കുന്നില്ല ആറ്റിലും കണ്ടത്തിലും ഒക്കെ പോയി മീൻ പിടിക്കാൻ പിന്നെ വലയിട്ടു കിട്ടുന്ന ആറ്റുമീനൊക്കെ കണ്ടു കഴിയുമ്പോൾ അപ്പോൾ വില ചോദിച്ച് നമ്മൾക്ക് ഒക്കുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന താങ്ങാവുന്ന വിലയാണെങ്കിൽ അത് മേടിക്കും ഞങ്ങളെല്ലാവരും കൂടെ അത് കറിവെച്ച് കഴിക്കും അതൊക്കെയാണ് അല്ലാതെ മത്തിയോടും അയലയോടും ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ ഇപ്പോഴത്തെ വലിയ മീന് വറ്റക്കൊക്കെ നാനൂറും അഞ്ഞൂറും ഒക്കെ വിലയാണ് പിന്നെ വല്ലപ്പോഴും പിള്ളേര് അങ്ങനെ മേടിച്ചെങ്കിൽ അത് കൂട്ടും കൂട്ടാറുണ്ട്